ഹലോ ആ സ്വിഗ്ഗിയല്ലേ ഞാനൊരു ഫുഡ് ഓർഡർ ചെയ്തിരുന്നേ ആ ആ എനിക്കൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ലേറ്റ് ആകുവൊന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ നിങ്ങളിപ്പോൾ ഏകദേശം എവിടെ എത്തി ആ അവിടുന്ന് കടവന്ത്രയിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആ പത്ത്പതിനഞ്ച് മിനിറ്റ് എടുക്കും അല്ലേ ആ ഇത് അവിടെ ഒരു പോക്കറ്റ് റോഡില്ലേ ആ ജംഗ്ഷനീൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ആ അവിടെ ആ ജംഗ്ഷനിൽ തന്നെ വന്നാൽ മതി ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വരാം എന്നെ വിളിച്ചാൽ മതി ഞാൻ താഴോട്ട് ഇറങ്ങി വരാം എനിക്കൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിട്ടാണ് മാക്സിമം ഒന്ന് പെട്ടെന്ന് നോക്കാൻ പറ്റുമോ ആ ആ അവിടുന്ന് ആ ലെഫ്റ്റ് തിരിഞ്ഞിട്ടുള്ള ആ ജംഗ്ഷനില് അവിടുന്ന് വിളിച്ചാൽ മതി ആ മാക്സിമം പെട്ടെന്ന് എത്തില്ലേ ആ ആ ശരി അല്ല വേറൊന്നും കൊണ്ടല്ല എനിക്കൊരു ഇൻറ്റർവ്യൂ ഉള്ളതുകൊണ്ടാട്ടോ ആ ആ ശരി ആ ആ കുഴപ്പമില്ല കുഴപ്പമില്ല പെട്ടെന്ന് വന്നാൽ മതി ശരി താങ്ക്സ്